ഇന്നത്തെ ഇന്ത്യൻ മാധ്യമങ്ങളെ കുറിച്ചു പറയുകയാണെങ്കിൽ ശരിയായ വസ്തുതകൾ ഒന്നുമല്ല അവർ അവതരിപ്പിക്കുന്നത് എന്നാൽ ചിലർ അവരുടെ ടാർഗറ്റിനും റേറ്റിംഗ് കൂട്ടുന്നതിനും മറ്റുമായിട്ട് ഒരു ബിസിനസ്സ് മൈൻ്റോടെയാണ് മാധ്യമ പ്രവർത്തനം നടത്തുന്നത് എന്നാൽ മറ്റു ചിലരാകട്ടെ അവരുടേതായ എല്ലാ വാർത്തകളും പ്രസക്തമാണെന്ന് തോന്നുന്നത് മാത്രം അവതരിപ്പിക്കുന്നവരും ഉണ്ട് എന്നാൽ ആഗോള തലത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ ബിസിനസ് പരമായിട്ടും മാത്രമാണ് വാർത്ത അഥവാ മാധ്യമങ്ങളെ കുറിച്ചു പറയാനുള്ളത് കാരണം അവർ അവതരിപ്പിക്കുന്ന വസ്തുതകൾ അവർക്ക് തന്നെ വ്യക്തമല്ല അവർ എന്താണ് അവതരിപ്പിക്കുന്നത് എന്ന് എങ്കിലും അത് വളച്ചൊടിച്ചു ജനങ്ങളിലേക്ക് കൗതുകമേറുന്ന തരത്തിൽ അവർ വാർത്തകൾ എത്തിക്കുന്നു അതിനാൽ കൂടുതൽ മാധ്യമങ്ങളെ ആശ്രയിക്കുന്ന തരത്തിൽ മാധ്യമങ്ങൾ മനുഷ്യരെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത്